ഇത്രയും നാളത്തെ ജോലിക്ക് ശേഷം ഇനി എവിടെയെങ്കിലും ഒക്കെ യാത്ര പോവണമെന്നുണ്ട് താല്പര്യം ഉണ്ട് ഇത്രയും നാൾ സ്കൂളിലെ പഠിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇനി ഒരു റിട്ടയർമെൻറ് ആയല്ലോ ഇനി കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയമായി അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യണമായിരുന്നു നമുക്ക് പാസ്പോർട്ട് ഓഫീസിലൊന്ന് അതിൻ്റെ അപേക്ഷയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരണമല്ലോ അത് ആരെ കൊണ്ട് പറ്റുമായിരിക്കും ഒന്ന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അതൊന്ന് ചെയ്ത് തന്നിട്ടേ നമുക്ക് ആരുടെയെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പിടിക്കുക ഒക്കെ ചെയ്തിട്ട് ഒന്ന് പോകണമായിരുന്നു അതിനെക്കുറിച്ച്